ഹലോ ഹലോ പറയൂ അതെ എത്ര വയസ്സായി എന്താ പറ്റിയത് ആണോ എങ്ങനെയാണ് ഇടവിട്ട് ഇടവിട്ടാണോ എങ്ങനെയാണ് പനിക്കുന്നത് ഓക്കേ ചുമ എന്തെങ്കിലും ഉണ്ടോ തൊണ്ട വേദനയുണ്ടോ ആണോ ഓക്കേ മഴ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടായിരുന്നോ ഓക്കേ അപ്പോൾ ഞാൻ കുറച്ച് മരുന്നൊക്കെ എഴുതിത്തരാം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് കുടിച്ച് നോക്ക് പിന്നെ ആവി ഒക്കെ കൊള്ളുക അതുപോലെ തൊണ്ടവേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ് കൊള്ളുക ഉപ്പ് വെള്ളമൊക്കെ കൊള്ളില്ലേ ആ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക എന്നിട്ടൊരു മൂന്ന് ദിവസം ഞാൻ ഈ മരുന്ന് പറഞ്ഞിട്ടുള്ള മരുന്നൊക്കെ കഴിച്ചു നോക്കിയിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഒന്ന് വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഓക്കേ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള മരുന്നൊക്കെ കഴിച്ചിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ മതി പനി കുറഞ്ഞ് നല്ലവണം പനി ഉണ്ടോ എവിടേയും പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ പനി ആണോ അപ്പോൾ അത് കഴിച്ച് കഴിച്ചിട്ട് കുറവില്ല അല്ലേ

ആണോ ഓക്കേ അപ്പോൾ വീട്ടിലാരെങ്കിലും ആർക്കെങ്കിലും പനി എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ എന്നാൽ അത് പകർന്നതായിരിക്കും ഓക്കേ അപ്പോൾ ഞാൻ പറയുന്ന മരുന്നൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക എന്നിട്ട് കുറവില്ലെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് ഒന്ന് വരണം ഓക്കേ ഓക്കേ ഓക്കേ